വൈദ്യുതിയുടെ വൈദ്യുതി മൂലം നമുക്ക് ഒരുപാട് അപകടങ്ങൾ ഉണ്ടാകാറുണ്ട് കൂടുതലായും മൊബൈൽ ഫോൺ വഴിയാണ് അപകടങ്ങൾ അതായത് ഇപ്പം ചാർജർ കുത്തിയിട്ടുകൊണ്ട് സംസാരിക്കുക ഫോണിൽ പിന്നെ ഇപ്പം സ്വിച്ച് ഓണാക്കിയിട്ട് ചാർജർ കുത്തിയിടുക കുത്തിയിട്ട് സംസാരിക്കുക അപ്പോഴൊക്കെ ഫോൺ പൊട്ടിത്തെറിച്ച് വൻ അപകടങ്ങൾ ഉണ്ടാകാറുണ്ട് അതുപോലെ വയറിങ്ങിൻ്റെ ഇടയിലും ഷോർട്ടേജും കാര്യങ്ങളുണ്ട് അത് നമ്മളറിയാതെ ലൈറ്റ് ഇടുമ്പോൾ എല്ലാം കത്തി നശിക്കുക പിന്നെ വെള്ളം അതായത് ഒരുപാട് വെള്ളം നിറഞ്ഞ് കിടക്കുന്ന ഏരിയയിൽ അത് ഒന്നേ നമ്മൾ തറ കഴുകുമ്പോഴും റോഡിലൊക്കെ വൈദ്യുതി ലൈൻ പൊട്ടി കിടക്കുവാണെങ്കിൽ നമ്മൾ അറിയത്തില്ലായിരിക്കും ചിലപ്പം അത് കയറി ചവിട്ടുമ്പോൾ തന്നെ അപകടങ്ങളുണ്ടാകും മരണം വരെ സംഭവിക്കും പിന്നെ കഴിവതും വെള്ളമൊക്കെ കൈയിൽ ഉപയോഗിച്ച് കൈയിലൊക്കെ ഉണ്ടെങ്കിൽ അത്കൊണ്ട് സ്വിച്ച് ഒന്നും ഇടാൻ പോകാതെ ഇരിക്കുക അപ്പോൾ എർത്ത് അടിക്കും നമുക്ക് വൻ അപകടം ഉണ്ടാകും ഐയൺ ബോക്സിൽ നിന്നൊക്കെ തുണി നനഞ്ഞ തുണിയൊക്കെ ആണേ ചിലപ്പോൾ ചില കാരണവശങ്ങളിൽ അതിൽ ഉപയോഗിക്കുമ്പോൾ നമ്മളെ കൈ നമ്മൾ ഉപയോഗിച്ച് തേക്കുമ്പോൾ നമ്മുടെ നമുക്ക് അപകടം ഉണ്ടാകാം കൂടുതലും ഈ ബെഡ് നമ്മുടെ ബെഡ് റൂമിൽ തന്നെ കട്ടിലിൻ്റെ മുകളിൽ സ്വിച്ച് ബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കുട്ടികൾ അതിൻ്റെ അകത്തോ വിരല് ഇട്ട് എറെകയോ എന്തേലുമൊക്കെ ചെയ്യും അപ്പോൾ അപകടമൊക്കെ ഉണ്ടാകും കഴിവതും അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളാൽ ശ്രദ്ധിക്കുക അതാണ് അതിന് ചെയ്യേണ്ടത് അല്ലാതെ വേറെയൊരു മാർഗ്ഗവുമില്ല അപ്പോൾ വൈദ്യുതി ലൈൻ പൊട്ടി കിടക്കുമ്പോൾ നമുക്ക് അറിയാം അത് അങ്ങനെയുള്ളതൊക്കെ നമുക്ക് ചിലപ്പോൾ കണ്ട് മനസിലാക്കാൻ പറ്റും എന്ന് വരില്ല അല്ലാതെ കുട്ടികളൊക്കെയാണെങ്കിൽ പോയി സ്വിച്ച് ബോർഡിൻ്റെ അടുത്തോട്ട് പോകുമ്പോൾ കഴിവതും കുട്ടികളെ തടയുക അങ്ങോട്ട് പോകരുത് അത് തൊടരുത് ഒക്കെ പറഞ്ഞ് വഴക്ക് പറയുക ഐയൺ ബോക്സ് ആണേ പോലും നമ്മൾ നമ്മൾ സൂക്ഷിച്ച് ഓരോ കാര്യങ്ങളും സൂക്ഷിച്ച് ചെയ്യുക എന്നാൽ മാത്രമേ ഈ അപകടങ്ങളൊക്കെ ഒഴിവാക്കാൻ പറ്റൂ എന്നാലും കൂടുതലായിട്ട് നമ്മൾ കണ്ട് വരുന്ന മൊബൈൽ പൊട്ടി തെറിക്കുന്ന ഒരിതാണ് കഴിവതും ഫോൺ കുത്തിയിട്ടുകൊണ്ട് കിടന്ന് ഉറങ്ങാതെ ഇരിക്കുക ബാറ്ററി വീർത്ത് പൊട്ടിത്തെറിക്കുക അങ്ങനത്തെ പല അപകടങ്ങളും നമ്മൾ ദൈനംദിനം കണ്ടു കൊണ്ടിരിക്കുകയാണ് ആ ഇപ്പോൾ ചാർജ് ചെയ്യാതെ തന്നെ ചുമ്മാ ഫോൺ പോക്കറ്റിൽ ഇട്ടാൽ മതി അല്ലെങ്കിൽ തന്നെ പൊട്ടി തെറിക്കുന്നു കഴിവതും നല്ല നല്ല വയറിയിങ് സംവിധാനങ്ങളൊക്കെ ചെയ്യുക പിന്നെ ട്രാൻസ്ഫോർമർ ട്രാൻസ്ഫോർമറിൻ്റെ ഒക്കെ അടുത്ത് പോയി അതിലൊന്നും തൊടാതിരിക്കുക അതിലൊക്കെ തൊട്ടാൽ അറിയാലോ പിന്നെ മിക്കയെടത്തും നമ്മൾ കാണുന്നതാണ് ഒന്നും ചെയ്യാതെ തന്നെ ട്രാൻസ്ഫോമർ ഒക്കെ പൊട്ടി തെറിക്കുന്നുണ്ട് അങ്ങനെ കഴിവതും നമ്മൾ നമ്മളാൽ കഴിയുന്ന പോലെ ഒരു ഒരു അപകടം ഒഴിവാകാം എന്നേ ഉള്ളൂ അതിൽ ഈ നമ്മുടെ ഈ ലൈനുകളില്ലേ അങ്ങനത്തെ ഇതിലൊന്നും ഇപ്പം എന്തേലുമൊക്കെ മരങ്ങളുടെയൊക്കെ കൊമ്പ് അതിലൊട്ടൊക്കെ നിൽക്കുവാണെങ്കിൽ അതിലൊന്നും പോയി വലിച്ച് നമുക്ക് പറ്റുന്ന പറ്റാത്ത പരിപാടികളിൽ ഒന്നും ചെന്ന് ചാടാതിരിക്കുക അതൊന്നും പറ്റുകേലെങ്കിൽ അതൊന്നും വലിച്ചിടാൻ നോക്കാതെ ഇരിക്കുക അങ്ങനെയൊക്കെ ഇപ്പം മരക്കൊമ്പുകളൊക്കെ വലിക്കാൻ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അത് അതിൽ കയറി മുട്ടി തന്നെ നമുക്ക് ഷോക്ക് ഏൽക്കാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടുതൽ കൂടുതലും നമ്മളാൽ തന്നെ ശ്രദ്ധിക്കുക അല്ലാതെ കൂടുതൽ വേറെ മാർഗ്ഗങ്ങളൊന്നുമില്ല